അതെല്ലോ എന്തായിരുന്നു നിങ്ങൾക്ക് വേണ്ടത് ഹോൾസെയ്ൽ ആയിട്ടാണോ അതോ റീറ്റെയ്ൽ ആണോ ഹോൾസെയ്ൽ ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത് ഓ തീർച്ചയായും തരും എപ്പോഴത്തേക്കാണ് വേണ്ടത് മാര്യേജ് ഫങ്ക്ഷൻ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ലിസ്റ്റ് ഇട്ട് തന്നാൽ മതി നമ്മൾ വേണ്ട സാധനങ്ങൾ അവിടെ കൊണ്ടുത്തരും എന്തൊക്കയാണ് വേണ്ടത് എത്ര കിലൊ വേണം ആ അപ്പം അ ഓക്കെ ഓക്കെ നിങ്ങൾ ഡേറ്റ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് തലേ ദിവസം ആ സമയത്ത് തന്നെ കുക്ക് എന്തായാലും തലേ ദിവസം തന്നെ സാധനം വേണമല്ലോ തലേ ദിവസം തന്നെ നമ്മൾ സാധനങ്ങൾ അവിടെ എത്തിക്കും ഓക്കെ പതിനെട്ടാം തീയതി ഉച്ച കഴിയുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് ഏൽപ്പിക്കേണ്ടത് പറഞ്ഞാൽ മതി അഡ്രസ് തന്നാൽ മതി എന്തൊക്കെ എത്രയൊക്കെ വേണെമെന്ന് കൂടെയുള്ള കോണ്ടിറ്റി എത്ര വേണം എന്നുള്ളത് കൂടെ പറഞ്ഞാൽ മതി

തൽക്കാലത്തേക്ക് അതായത് ഹോൾസെയ്ൽ എടുക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും വില കുറയ്ക്കും റീറ്റെയ്ൽ ആവുമ്പോഴാണ് എല്ലാത്തിനും വില കൂടുതൽ ഹോൾസെയ്ലിന് എല്ലാത്തിനും വില കുറച്ചേ തരുള്ളൂ നമ്മൾ വിൽക്കുന്നതിനേക്കാളും പത്ത് രൂപയോളം മിനിമം എങ്ങനേലും കുറയും ഒത്തിരി എമൗണ്ടിൻറ്റെയാണിപ്പം തക്കാളിയൊക്കെ നൂറ് രൂപയൊക്കെയാണെങ്കിൽ അതൊരു അഞ്ച് ആറ് രൂപയൊക്കെ കുറയ്ക്കുള്ളൂ ഒരു കിലോയ്ക്ക് അപ്പം തന്നെ നിങ്ങൾ കുറേ ചോദിച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്രയും രൂപ തന്നെ കുറച്ച് കൊറയ കുറയുമല്ലോ

ആ ഡെലിവറി ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് വെച്ചിട്ടുള്ളത് എന്നാണ് വേണ്ടതെന്ന് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ തരുക ബാക്കി പിന്നെ ഇപ്പം നമ്മൾ കൊണ്ടു വരുന്നതിൽ സാധനങ്ങൾ ബാക്കിയുണ്ട് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും കേട്ടോ ഫങ്ക്ഷൻ ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ സാധനം ആവുന്നു ബാക്കിയുള്ള സാധനം തിരിച്ചെടുത്തിട്ട് എത്ര എമൌണ്ട് എന്ന് പറയുള്ളൂ അതെ അതെ ഇതില് ചെയ്താൽ മതി